കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഒരുപാട് താൽപര്യവും ഇഷ്ടവും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് വസ്തുക്കൾ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പ്രധാനമായും ഉപയോഗശൂന്യമായി കിടക്കുന്ന വസ്തുക്കൾ വച്ചാണ് ഞാൻ എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറ് ഉപയോഗം കഴിഞ്ഞ പേപ്പർ ന്യൂസ് പേപ്പറുകൾ അഥവാ ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെയെല്ലാം വച്ച് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് പേപ്പറെല്ലാം വച്ച് ഒരു വീടു വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബോട്ടിൽ പെയിറ്റിംഗ് അഥവാ ബോട്ടിൽ ആർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഉപയോഗശൂന്യമായ ഈ ആൾക്കഹോളിൻ്റെ കുപ്പി ബിയർ കുപ്പി അങ്ങനെ എല്ലാം ശേഖരിച്ച് വച്ച് അതിൽ പെയിൻ്റ് ചെയ്യാനും പടങ്ങൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് അങ്ങനെ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീടും പരിസരവും ഒക്കെ വളരെ ഭംഗിയാക്കാനും അലങ്കരിക്കാനും നമുക്ക് സാധിക്കും നമ്മൾ പുറത്ത് പുറത്ത് ആൾക്കാർക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് സമയം കൊണ്ടു തന്നെ നമ്മളുടെ കൈയിലുള്ള വസ്തുക്കൾ വച്ച് നമ്മൾ തന്നെ ഇങ്ങനെ അലങ്കരിക്കുന്നതാണ് അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റിസ്ഫാക്ഷനും കിട്ടും പൈസയും പോവില്ല അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് വീട്ടിൽ വീട്ടിൽ പലതരം ഫ്രെയ്മുകൾ പേപ്പറ് വച്ച് പലതരം ഫ്രെയ്മുകൾ ഉണ്ടാക്കാനും പല ചുവരിൽ കുറേ പടങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കാനും അങ്ങനെ പല പല അലങ്കാരപ്പണികൾ ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ട് പേപ്പറു കൊണ്ട് ചുമരിൽ തൂക്കിയിടാവുന്ന ഒരു ഫോട്ടോ ഫ്രെയ്മും അങ്ങനെ പലതരം കലാരൂപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്